ഇന്ത്യയിലെ കാലാവസ്ഥയെ പറ്റി പറഞ്ഞാൽ രണ്ടുമൂന്ന് രീതിയിലുണ്ട് ഒന്ന് കുറച്ച് മഴക്കാലമുണ്ട് ഇപ്പോൾ കേരളത്തിൽ മഴക്കാലമാണ് അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലോക്കെ ആണെങ്കിൽ ശൈത്യകാലം ഉണ്ട് മഞ്ഞ് വീഴുന്നൊരു സമയം പിന്നെ എല്ലായിടത്തും ഉള്ളതാണ് വേനൽകാലം ഇന്ത്യയിൽ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ് മൂന്ന് കാലമെങ്കിലും ഉറപ്പായിട്ടും ഉണ്ട് ഇപ്പോൾ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ മഴക്കാലം ഉത്തരേന്ത്യൻ സൈഡുകളിലൊക്കെ ചൂടും തണുപ്പുമായിട്ടൊക്കെ ഈ തണുപ്പില്ല പക്ഷേ ചൂടിൻ്റെ കാലഘട്ടമാണ്